വയനാട് ജില്ലയിലെ പ്രധാന തൊഴിൽ പിന്നെ ഉപജീവന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയിൽ ഉള്ളവരുണ്ട് വ്യവസായത്തിൽ ഉള്ളവരുണ്ട് സേവനങ്ങളുണ്ട് സ്വയം തൊഴിലുണ്ട് എല്ലാം ഉണ്ട് ആളുകളിപ്പോൾ സർക്കാർ ജോലിയാണെങ്കിലും പിന്നെ പിന്നെ സ്വകാര്യ ജോലികളും എല്ലാം ഇഷ്ട്ടപ്പെടുന്നുണ്ട് പിന്നെ അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സർക്കാർ ജോലിയാണ് ഇപ്പൊൾ എല്ലാവരും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം പഠിക്കുന്നവർക്ക് ചിലർക്ക് കിട്ടിയെന്ന് വരില്ല ചിലർക്ക് കിട്ടും അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും സർക്കാർ ജോലിൻ്റെ കാര്യത്തില് പക്ഷേ എല്ലാർക്കും സർക്കാർ ജോലി കിട്ടീട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനൊരു സേഫാണല്ലോ പിന്നെ ഇത് കിട്ടാത്തവർക്ക് പൊതുവെ എന്തായാലും പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്കെയ്യാണ്ട് അതിജീവിക്കാൻ ഉള്ള വേറെ വഴികളില്ല പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ അവർക്ക് ഉദ്ദേശിച്ച വേതനങ്ങൾ അങ്ങനെ കിട്ടുന്നില്ല തൊഴിലില്ലായ്മ ഉണ്ട് അത്യാവശം തൊഴിലില്ലായ്മ ഒക്കെയുണ്ട് നമ്മുടെ വയനാട്ടില് അങ്ങനെ തൊഴിൽ ഇല്ലാണ്ട് വരുമ്പം പൊതുവേ എല്ലാരും പുറമെ അതായത് ദുബായ് അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ അതായത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നു